ആ പയ്യന്നൂർ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ പ്രിൻസിപ്പൾ അല്ലേ ഞാൻ നെജയാണ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുകയാണ് എനിക്ക് എഞ്ചിനീയറിംഗിന് ചേരാൻ താൽപ്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ എനിക്ക് പ്ലസ് ടുവിൽ നയൻറി ടു പെർസൻറേജ് ആയിരുന്നു ഞാൻ ഇവിടെ പൂക്കളത്തൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കുളിൽ

മാത്സിന് എയ്റ്റി എയ്റ്റി ടു പെർസെൻറേജ് ആണ്

ഫിസിക്സിന് നയൻ എയ്റ്റി നയൻ

വേറെ കോളേജിലൊക്കെ മിസ് അന്വേഷിച്ചിട്ടുണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പേഴ്സണലി താൽപ്പര്യം ഉള്ളൊരു കോളേജ് ഒരെണ്ണം ഇവിടെയാണ് കസിൻസ് ഒക്കെ പഠിച്ച് പോയ കോളേജ് ആയതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ അവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ മാർക്കിനൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ സാറിനെ ഏതിനാണ് ഇപ്പോൾ ഐ മീൻ മാർക്കിൻറേത് വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയാവും അല്ലേ

ആ മാക്സിമം ഒന്ന് നോക്കൂ കേട്ടോ സാർ നല്ല താൽപ്പര്യം ഉണ്ടായിരുന്നു ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ

ആ ആ ഓക്കെ